സോഷ്യൽ മീഡിയയിലിടാൻ വേണ്ടി റീൽസും നൃത്ത വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് ഭയങ്കര ഫ്ലോപ്പാണ് കണ്ടിട്ട് ആ സമയം അല്ലെങ്കിൽ പിറ്റേ ദിവസം രണ്ടു ദിവസവും നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഓ നമ്മൾ കളിച്ച ഡാൻസ് പക്ഷേ ആ അതൊരു സോഷ്യൽ മീഡിയയിൽ നമുക്ക് പിന്നെ ഇടാൻ തോന്നില്ല കുറച്ചു ദിവസം കഴിയുമ്പം ഓ ഇത്ര മോശമായിട്ടാണോ നമ്മൾ കളിച്ചതെന്ന് എന്നെയാണ് കേട്ടോ ഞാനെന്ന വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ ഇടാറില്ല ഇനി ഞാൻ സ്വന്തം എടുക്കുന്നു കാണാൻ എനിക്ക് കാണാൻ ഇഷ്ടമാണ് വേറൊരാളെ കാണിക്കാൻ കാണിക്കാൻ കൊള്ളില്ലാന്നൊരു ഫീലുണ്ട്